കുട്ടിക്കാലത്തെ യാത്രയെക്കുറിച്ചു പറയുമ്പോള് എന്റെ ഓര്മ്മയിലുള്ളത് കേരളത്തിലെ കൊച്ചിയിലെ വണ്ടര്ലാ മുൻപ് വീഗാലാന്റെന്നു പറയുന്ന അമ്യൂസ്മെന്റ് പാര്ക്കിലേക്കുള്ള യാത്രയാണ് നാലാം ക്ലാസ്സില് പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ടു റ്റൂർ പോകുന്നത് കൂട്ടുകാരും അദ്ധ്യാപകരും ഒക്കെ ആയിട്ടു നാലാം ക്ലാസ്സില് വെച്ചു റ്റൂർ പോയത് ഇന്നും ഓര്മ്മയില് മായാതെ നില്ക്കുന്ന ഒന്നാണ് ആദ്യമായി റ്റൂർ പോകുന്നതിന്റെ ഒരു എക്സൈറ്റ്മെൻറ്റും സന്തോഷവുമൊക്കെ ഇപ്പോഴും മനസ്സില് മായാതെ നില്ക്കുന്നു വണ്ടര്ലാ അമ്യൂസ്മെന്റ് പാര്ക്കിനെക്കുറിച്ചു പറയുമ്പോള് ആവേശകരമായോ രസകരവുമായ ഒരു യാത്രക്കായി നിങ്ങളാസൂത്രണം ചെയ്യുകയാണ് എന്നുണ്ടെങ്കില് തീര്ച്ചയായും പോകാന് പറ്റിയ ഒരിടമാണ് അത് നിങ്ങളുടെ കുടുംബമായിട്ടോ നിങ്ങളുടെ സുഹൃത്തുക്കളുമൊക്കെ ആയിട്ടോ പോകുവാന് പറ്റിയ മനോഹരമായ അമ്യൂസ്മെന്റ് പാര്ക്ക് നിങ്ങളുടെ തല കറങ്ങുന്ന അൻപതിലധികം സാഹസിക റൈഡുകള് ഇവിടെയുണ്ട് വാട്ടർ റൈഡുകള് മുതല് മുടി ഉയര്ത്തുന്ന മറ്റു റൈഡുകള് വരെ ഇന്ഹൗസ്സ് മള്ട്ടി കുസീന് ഫുഡ് കോര്ട്ടില് നിങ്ങള്ക്കു സ്വാദിഷ്ടമായ ഭക്ഷണവും ആസ്വദിക്കാമെന്നതാണ് ഏറ്റവും നല്ല

കൊച്ചിയില്നിന്നു പതിനാല് കിലോ മീറ്റര് അകലെയാണ് ഈ അമ്യൂസ്മെന്റ് പാര്ക്ക് പള്ളിക്കരയിലെ ഒരു കുന്നിന്മുകളിലാണ് ഇതു സ്ഥിതി ചെയ്യുന്നത് പാര്ക്കു തന്നെ മുപ്പതേക്കർ വിസ്തൃതിയില് വ്യാപിച്ചു കിടക്കുന്നു പൂര്ണ്ണമായ സ്ഥലവും റൈഡുകളും ഒറ്റയടിക്ക് ഉള്ക്കൊള്ളുന്നതു ബുദ്ധിമുട്ടാണ് അതിനാല് രണ്ടു തവണ പ്ലാന് ചെയ്യുക എല്ലാത്തിനുമുപരി ഇത്തരത്തിലുള്ള യാത്രകളും പ്ലാനുകളും പോകുന്നത് മൂല്യവത്താണ് കൊച്ചിയിലെ ഈ അമ്യൂസ്മെന്റ് പാര്ക്കിലേക്കു ബസ്സുകളും ക്യാബുകളും ലഭ്യമാണ് വീഗാലാന്ഡ് അമ്യൂസ്മെന്റ് പാര്ക്കില് നിന്ന് ഒമ്പത് കിലോ മീറ്റര് അകലെയാണ് ആലുവാ റെയില്വേ സ്റ്റേഷന് ഞങ്ങള് ബസ്സിലായിരുന്നു അവിടെ എത്തിയത് വണ്ടര്ലാ അമ്യൂസ്മെന്റ് പാര്ക്കിലെ ആകര്ഷണങ്ങളെന്നു പറയുന്നത് മ്യൂസിക്കല് ഡാന്സിംഗ് ഫൗണ്ടൻ പേരു സൂചിപ്പിക്കുന്നതു പോലെ എല്ലാ പ്രായത്തിലുമുള്ള ആളുകളെ ആകര്ഷിക്കുന്ന ഒരു സംഗീത ജലധാരയാണിത് നിങ്ങള്ക്കു ജലധാരക്കു ചുറ്റുമിരുന്നു നല്ല സമയം ആസ്വദിക്കാം വിൻറ്റേജ് കേസ്സില് ഈ ഏഴു നിലകളുള്ള ഫെയറി ലാന്ഡ് തീര്ച്ചയായും സന്ദര്ശിക്കേണ്ട സ്ഥലവും കുട്ടികള്ക്കൊരു മിഠായിയുമാണ് വിൻറ്റേജ് റ്റൊര്ണാഡോ നാൽപ്പതടി ഉയരമുള്ള മാന്ത്രിക കോട്ടയ്ക്കു നടുവില് സജ്ജീകരിച്ചിരിക്കുന്ന ഈ റോളര്കോസ്റ്റര് വീഗാലാന്ഡ് പാര്ക്കിലെ പ്രധാന ആകര്ഷണങ്ങളിലൊന്നാണ് ഡീവിയന് വെര്ട്ടിക്കല് ഫാള് ഉച്ചത്തില് നിലവിളിക്കുകയല്ലാതെ മറ്റൊന്നും ചിന്തിക്കാന് കഴിയാത്ത വിധം വേഗത്തില് വെള്ളത്തിന്റെ കുത്തൊഴുക്കില് താഴേക്കു വീഴുന്നതിന്റെ ആവേശം ആസ്വദിക്കുക അതൊരു രോമാഞ്ചവും കുളിം കുളിര്മയും നിറഞ്ഞ അനുഭവമാണ് ക്യാറ്റര്പില്ലര് റൈഡ് മാജിക് കാര്പ്പറ്റ് റാപ്പിഡ് റിവര് വേൾപ്പൂള് വണ്ടര് സ്പ്ലാഷ് എന്നിവ കുട്ടികള് പരീക്ഷിക്കാന് ഇഷ്ടപ്പെടുന്ന ചില റൈഡുകളില് ഉള്പ്പെടുന്നു പറക്കുന്ന അമ്മോമായി സൗഹൃദം സ്ഥാപിക്കുക ബലൂണ് ടവറില് നിന്നു ചാടുക കുതിക്കുന്ന കുതിരയില് കുതിക്കുക എന്നിവ കുട്ടികളുടെ ഹൃദയത്തോടു ചേര്ന്നുള്ള മറ്റു പ്രവര്ത്തനങ്ങളാണ് അവിടെ ചെല്ലുമ്പോള് നാം ചില കാര്യങ്ങളറിഞ്ഞിരിക്കണം പുറത്തുനിന്നുള്ള ഭക്ഷണം അവിടെ അനുവദിക്കുകയില്ല നീന്തല്ക്കുളത്തില് പ്രവേശിക്കാന് നീന്തല്വേഷം നിര്ബന്ധമാണ് സുരക്ഷാ ആവശ്യങ്ങള്ക്കായി വളര്ത്തു മൃഗങ്ങളെ വീഗാ പരിസരത്ത് അനുവദിക്കുന്നതല്ല വീഗ പരിസരത്തു മദ്യപാനം കര്ശനമായി നിരോധിച്ചിരിക്കുകയും ചെയ്യുന്നു ആദ്യമായി ചോക്കോ ബാർ കഴിക്കുന്നത് ഈ യാത്രയിലായിരുന്നു കൂട്ടുകാരുമൊത്ത് സ്വിമ്മിംഗ് പൂളില് ചാടുവാനും വെള്ളത്തില് ചാടുവാനും വിവിധതരം റൈഡുകളില് കയറുവാനുമൊക്കെ ഉള്ളത് ഇന്നും ഓര്മ്മയിലങ്ങനെ മായാതെ നില്ക്കുന്ന ഒന്നാണ്